കേരളത്തിന് ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് താങ്ങാനാവുന്ന ഒരു ഇതാണ് കാരണം എന്താന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ആരോഗ്യപരമായിട്ടും സമ്പത്തികപരമായിട്ടും നമ്മുടെ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് കാരണം എന്താണെന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽത്ത ന്നെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ നമുക്ക് ഇവടെത്തന്നെ നമ്മളുടെ കോഴിക്കോട് തന്നെ മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ വയനാടിന് മെഡിക്കൽ കോളേജ് സ്വന്തമായിട്ടില്ല അപ്പോൾ വയനാട്ടിലുള്ളവർ വരെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ അവർക്ക് ഒരു ഹോസ്പിറ്റൽ അനിവാര്യമായിട്ടുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ കുറേ സ്ഥലങ്ങളൊക്കെ മെച്ചപ്പെടാനുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലക്ക് മെയിനായിട്ട് ഒരു ഹോസ്പിറ്റല് കാര്യങ്ങളില്ല അപ്പൊ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ആരോഗ്യപരമായിട്ടും ഒക്കെ മുന്നേറണ്ട ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ടും അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താപറയുക പുറം പുറം ജില്ലകളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ എല്ലാ ജില്ലകളിലും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും